ഞങ്ങളുടെ വീട്ടിൽ ഒന്ന് രണ്ട് മൂന്ന് ഏകദേശം നാല് ശൗചാലയങ്ങളാണ് ഉള്ളത് ശൗചാലയങ്ങൾ ഉണ്ടായത് കൊണ്ട് തന്നെ നമ്മളെ വീടും പരിസരവും പിന്നെ നാടും ഒക്കെ നല്ല വൃത്തിയായി സൂക്ഷിക്കാൻ പറ്റുന്നുണ്ട് അതില്ലാത്തൊരവസ്ഥ ഇപ്പോള് നമ്മള് വേറൊരു സംസ്ഥാനത്തേക്ക് ടൂര് പോവുകയാണെങ്കില് വിനോദ സഞ്ചാരമായിട്ടങ്ങനെ യാത്ര ഒക്കെ പോവുകയാണെന്നുണ്ടെങ്കില് അറിയാൻ പറ്റും അവിടെ പരിസരവും റോഡും പരിസരവും ഒക്കെ വളരെ വൃത്തികേടായിട്ട് കിടക്കുന്നത് കാണാൻ പറ്റും ഇപ്പോള് നമുക്കു തന്നെ ഒരു അത്യാവശ്യം വന്നാല് ഒരു ഇങ്ങനെ പ്രാഥമിക കർമ്മങ്ങള് നിറവേറ്റാൻ വേണ്ടിയിട്ട് ഒരു ശൗചാലയം അന്വേഷിക്കണമെന്നുണ്ടെങ്കില് അതവിടെ കിട്ടാൻ കഴിയൂല ഇനിയുള്ളതുതന്നെ ആകെ വൃത്തികേടായിട്ട് കിടക്കുന്ന ഒരു അവസ്ഥയാണ് കാണാറ് നോർത്തിന്ത്യയിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കില് പിന്നെ പത്രങ്ങളും വീഡിയോസിലൊക്കെ കാണാം മറ്റേ റെയിവേ പാത അങ്ങനെ നദിക്കര അങ്ങനെയൊക്കെ വൃത്തികേടായിട്ട് പല സിറ്റുവേഷനും വീഡിയോയിലൊക്കെ കാണാറുണ്ട് അതുപോലെ തന്നെ നമ്മളെ ഇവടെ എല്ലാ വീടുകളിലും ശൗചാലയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ടുതന്നെ എല്ലാവര്ക്കും അസുഖങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെ കുറയാനും കൂടുതൽ ആരോഗ്യത്തോടെ ജീവിക്കാനും നമുക്ക് പറ്റുന്നതും ഈ ശൗചാലയം എല്ലാ വീടുകളിലും കാര്യമുണ്ടായതു കൊണ്ടാണ് ഏറ്റവും കൂടുതൽ രോഗികളുള്ളതൊക്കെ ഈ നോർത്ത് ഇന്ത്യ മറ്റു സ്ഥലങ്ങളാണെന്നാണ് റിപ്പോർട്ടുകളൊക്കെ കാണുമ്പോൾ മനസ്സിലാവുക